എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടേറിയ പാതകൾ താണ്ടേണ്ടി വന്ന രണ്ട് രണ്ട് യാത്രകളാണ് എനിക്ക് ഉള്ളത് ഒന്ന് കേരളത്തിന്റെ അടുത്തുള്ള എൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് കക്കാടംപോയന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കൂട്ടുകാർ ഒന്നിച്ച് ബൈക്കിൽ പോയൊരു യാത്ര അതെന്ന് പറയുമ്പോൾ എൻ്റെ അടുത്തുന്നൊരു നാൽപ്പത് നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലയാണ് ഈ കക്കാടംപോയിൽ ആ കടമ്പപോര് ഞങ്ങൾ ബൈക്കിലായിരുന്നു യാത്ര ചെയ്തിരുന്നത് ആദ്യമായിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് റോട്ട് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ഒന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെ അവിടെ ബൈക്ക് എടുത്തു അതിൽ രാവിലെ തന്നെ അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഏകദേശം അതിന്റെ ലൊക്കേഷൻ്റെ അടുത്തേക്ക് എത്തിയാൽ പോയേ എത്താനാകുമ്പോഴേക്കും നല്ല റോഡുകളെല്ലാം അവസാനിച്ചുകൊണ്ട് ഒരു ഓഫ് റോഡ് റോഡ മോഡ് റോഡിൽ മോഡ് റോഡിൽ അഭിമുഖീകരിക്കേണ്ടി വന്നു ആ ഞങ്ങളുടെ വണ്ടികൾ വളരെ മോശം വണ്ടികളായിരുന്നു ഇത്ര ക്കപ്പസിറ്റി തന്നെ ഇല്ലാത്ത വണ്ടികളായിരുന്നു ആദ്യം തുടക്കത്തിൽ ആക്കി ഒരുപാട് വെല്ലുവിളികളുണ്ടായിരുന്നു എങ്ങനെ കയറും വണ്ടി എന്ന് സംഭവിക്കുമോ എന്നാൽ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വാഹനങ്ങൾ ആ റോഡിലൂടെ കയറ്റി കൊണ്ട് നമ്മൾ വിജയകരമായി പൂർത്തീകരിച്ചു വീട്ടിലേയ്ക്ക് മടങ്ങി അതിനേക്കളും ഏറ്റവും ഉപരി ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു യാത്ര നിങ്ങൾ ബൈക്കുമായിട്ട് ഇന്ത്യയിലെ നോർത്ത് പ്രദേശങ്ങളുള്ള സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് രാജസ്ഥാനിലൂടെ ഉണ്ടായിരുന്ന അനുഭവങ്ങളൊന്നും വളരെ സന്തോഷവും ഒരു അഡ്വഞ്ചറും കൂടി നിറഞ്ഞൊരു യാത്രയായിരുന്നു രാജസ്ഥാനിലൂടെ ഞങ്ങൾ ബൈക്ക് ബൈക്ക് കൊണ്ട് പോയിരുന്ന ആ അനുഭവം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാകാത്ത ഒരു സന്തോഷമായ ഒരു യാത്രയായിരുന്നു അതിൽ ഏറ്റവും ഞങ്ങൾ ബുദ്ധിമുട്ടേറിയത് എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെത്തിയപ്പോൾ രാജസ്ഥാനിലെ മരുഭൂമിയിലൂടെ ഞങ്ങൾ വണ്ടിയും കൊണ്ട് മരുഭൂമിയിലൂടെ ഒരുപാട് കറങ്ങിയിരുന്നു രാജസ്ഥ മരുഭൂമിയെന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു മരുഭൂമിയാണ് ലോകത്തിലും തന്നെ അത്ര തന്നെ മോശമല്ലാത്തൊരു മരുഭൂമിയാണ് രാജസ്ഥാൻ മരുഭൂമി അപ്പം അതാ മരുഭൂമിയുടെ ഞങ്ങൾക്ക് ഒരുപാട് യാത്ര ചെയ്തു അങ്ങനെ അവസാനം യാത്ര ചെയ്യുന്നതിനിടയിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ്റെ വണ്ടി ടയറ് ചില പ്രശ്നം സംഭവിച്ചത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും ആകെ ഒരു പ്രയാസത്തിലായിരുന്നു എന്നിരുന്നാലും അവൻ്റെ വണ്ടിയാണ് ഞങ്ങൾ കയറ് കെട്ടിക്കൊണ്ട് ഞങ്ങൾ എല്ലാം രണ്ട് വണ്ടി വണ്ടി ഒരു വണ്ടി മേൽ കയറ് കെട്ടിക്കൊണ്ട് വലിച്ച് കൊണ്ട് അങ്ങനെ ഒരുപാട് ഒരു പത്ത് പതിനഞ്ച് കിലോ മീറ്ററുകൾ താണ്ടി കൊണ്ട് ഞങ്ങൾ ഒരു മരുഭൂമി കഴിഞ്ഞ ഒരു വർക് ക്ഷോപ്പിലെത്തി അത് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു അനുഭവമായിട്ടാണ് ഞാൻ ഇന്നും മനസ്സിലാക്കുന്നത്